ഹലോ ഞാൻ ചിന്നമ്മയാണ് മായത്ത്ന്ന് ബിബിനല്ലേ ബിബിനേ എനിക്കടുത്തമാസം പതിനഞ്ചാം തീയതി കൊച്ചിൻ്റെ മാമോദീസയാണ് അന്നേരം ബിബിൻ ഫോട്ടോയെടുക്കും നല്ല രീതീൽ എടുക്കുന്ന് കേട്ടു അതെങ്ങനെയാണ് അതിൻ്റെ റേറ്റൊക്കെ കൊച്ചും പിന്നെ ഒരു പത്ത് മുപ്പത് പേര് എല്ലാവരും കാണും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഫോട്ടോ നല്ല ഇതായിട്ട് എടുക്കണം അപ്പോൾ അത് സമയത്തന്നെ വരികേം വേണം എപ്പോൾ വരും എങ്ങനാണ് റേറ്റൊക്കെ അടുത്തമാസം പതിനഞ്ചാം തീയതി അത് ഞാൻ നോക്കിയിട്ട് പറയാം ഇന്നിപ്പം രണ്ടല്ലേ ഒന്നാം തീയതി പിന്നെ വെള്ളി വ്യാഴാഴ്ചയായിരുന്നു അപ്പം അതൊരു വ്യാഴാഴ്ച വരും

ഒരു പതിനൊന്ന് ഒരു പതിനൊന്ന് മണിക്കാണ് പള്ളിയിൽ കൊച്ചിൻ്റെ മാമോദിസ പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് ഒരു പത്തരക്കാകുമ്പോൾ വരാമോ വീട്ടീന്നും എടുക്കാമല്ലോ ഫോട്ടോ ആ നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ ആ ഉണ്ട് അതിൻ്റെ എടുക്കണം ആ അത് രണ്ടോ മൂന്നോ ഒക്കെ മതിയായിരിക്കും അ ഇല്ല അതിൻ്റെ ഇതില്ല വീട്ടിലോട്ടല്ല ഇവിടെ നമ്മുടെ ഹാളിലാണ് പള്ളീടെ അപ്പോൾ അവിടെ വന്നാൽ മതി ആ എടുക്കണ്ട എടുക്കണ്ട എടുക്കണ്ട

ആ ആ സി ഡീൽ മതിയാവും ആൽബം ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസയാകുകേലെ

ആ വീഡിയോയും വേണം കേട്ടോ ആ ഫോട്ടോയും വീഡിയോയും വേണം അ ചെറിയ രീതീലൊരെണ്ണാൽബം ചെയ്യാം അധികം വലിയ പൈസയാകുകേലെങ്കിലെ ആ ഇപ്പോൾ എല്ലാവരും ആൽബായിട്ടല്ലേ ചെയ്യുന്നത്

അ അതിൻ്റെ റേറ്റെത്രയാന്ന് ആലോചിച്ചിട്ടൊക്കെ പറയ് എത്ര രൂപയാകുമെന്നൊക്കെ

ആ ആ ആ പറഞ്ഞാൽ മതി ആ ആ മറക്കല്ലേ ശരിയെന്നാൽ